ആ ഇത് ബി ബി തോമസ് റസ്റ്റോറൻറ്റാണോ ആ സാറേ എനിക്ക് ബിരിയാണി വേണമായിരുന്നു സാറേ ബിരിയാണി നിങ്ങൾക്ക് അവിടെ ബിരിയാണി ഉണ്ടോ മട്ടൺ കറിയും ബിരിയാണിയും പ്ലെയിൻ മട്ടൻ പ്ലെയിൻ ബിരിയാണിയ്ക്കകത്ത് മട്ടൺ കറി ചേർത്ത് തരണം അങ്ങനെ ഉണ്ടോ അതിനുള്ള ഉണ്ടോ അവിടെ ആ എനിക്ക് എനിക്ക് ബിരിയാണിക്കകത്ത് മട്ടൺ വേണ്ട സാറേ അല്ലാതെ മട്ടൺ കറി സപ്പറേറ്റ് തന്നാൽ മതി പ്ലെയിൻ ബിരിയാണിയാണ് എനിക്ക് തരേണ്ടത് വേണ്ടത് പ്ലെയിൻ ബിരിയാണി തരണം പിന്നെ സപ്പറേറ്റ് മട്ടൺ കറിയും തരണം അതിന് വില എത്രയാവും സാറേ ആ സാറേ മട്ടൻ മട്ടൺ കറിക്ക് ഒരുപാട് ഭയങ്കര വിലയാണല്ലോ ഇത് പാർസൽ ചാർജും കൂടെ ചേർത്താണോ

ആ സാറേ വില സാറേ വില എനിക്ക് പ്രശ്നമല്ല പക്ഷെ നല്ല കോളിറ്റി ഉള്ള സാധനവും നല്ല ക്വാണ്ടിറ്റിയിലും കിട്ടണം അല്ല അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് ക്വാളിറ്റി നല്ല നല്ല ടേസ്റ്റായിരിക്കണം

ആ സാറേ ഇതിപ്പോൾ പിന്നെ സുബിൻ സുബിനെന്ന് പറഞ്ഞ ഒരാൾ എന്റെയടുത്ത് ഈ ഹോട്ടലിൻ്റെ കാര്യം പറഞ്ഞു റെസ്റ്റോറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാ സർ ഞാനിവിടെ അന്വേഷിക്കുന്നത് നിങ്ങൾ കുറച്ച് നല്ല രീതിയിൽ ചെയ്യുമെന്ന് ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട് ആ ആ ഓക്കേ സാറേ പിന്നെ എനിക്ക് ഇത് പാഴ്സൽ പാഴ്സല് ചെയ്ത് പാഴ്സലൊരു പത്ത് പിന്നെ പ്ലെയിൻ ബിരിയാണിയും മട്ടൺ കറിയും പാഴ്സല് ചെയ്ത് തരുന്നതിന് അഡിഷണൽ റേറ്റുണ്ടോ അതിന് വല്ല ഓഫറ് വല്ലതും തരാൻ നിങ്ങൾക്ക് പറ്റുമോ ആ അത് ശരി അത് ശരി ആ

വേറെ നിങ്ങളുടെ നിങ്ങളുടെ നിങ്ങളുടെ ബില്ലിനകത്ത് ജി എസ് ടി ചേർക്കുന്നുണ്ടോ ജി എസ് ടി ആ അപ്പം ജി എസ് ടി ബില്ലാണോ ഞങ്ങൾക്ക് തരുന്നത് അത് ശരി ജി എസ് ടി ബില്ലില്ലാതെ തരുമോ സാറേ നമുക്ക് ഇത്തിരി വെട്ടിച്ച് തരാൻ പറ്റുമോ ആ അത് ശരി അത് ശരി അത് ശരി അത് ശരി അപ്പം ഇനിയും സാറ് അവിടെ ഈ ബിരിയാണിയല്ലാതെ വേറെന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റം വേറെ എന്തേലുമുണ്ടോ സാറേ അല്ല നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സ്പെഷ്യലായിട്ടെന്തെങ്കിലും ഐറ്റമുണ്ടോ സ്പെഷ്യൽ സർ ഞാൻ കേട്ടില്ല സാറേ നിങ്ങളെ നിങ്ങൾക്കെന്തേലും സ്പെഷ്യലൈറ്റമുണ്ടോ സാറേ സ്പെഷ്യൽ ആ ശരി ശരി സാറേ എന്നാ പിന്നെ നിങ്ങൾ ഹലോ ഹലോ ഹലോ സാറേ തോന്നുന്നു പിന്നെ സ്പെഷ്യൽ ഐറ്റം എന്തൊക്കെയാണ് നിങ്ങൾ അതിനകത്ത് കൊടുക്കുന്നത്

ആ പപ്പടമുണ്ടാവുമോ സാറേ മുട്ടയോ മുട്ടയോ

ആ അത് ശരി അത് ശരി മുട്ട മുട്ട ഇല്ല എനിക്ക് മുട്ട കഴിച്ചുകൂടാ സാറേ അതുകൊണ്ടാണ് ഞാൻ ചിക്കെൻ ബിരിയാണി വേണ്ടെന്ന് വെച്ചിട്ട് മട്ടൺ ബിരിയാണി തന്നെ പറഞ്ഞത് പിന്നെ അതിൽ മുട്ട വല്ലതും വെയ്ക്കുമോയെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ ആ ആ ഓക്കേ സാറെ ഓക്കേ ബൈ